ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതലായി ഞങ്ങൾ കാണുന്ന വാർത്തത് മലയാള വാർത്തയാണ് ഇവിടുത്തെ മലയാള വാർത്തയാവുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അത് മനസ്സിലാക്കുവാനും അത് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ചെയ്യുവാനുമൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രദേശത്തെ വാർത്താ മാധ്യമങ്ങൾ മീഡിയ നെറ്റ് മീഡിയ നെറ്റ് പ്ലസ് ഇടുക്കി വിഷ്യൻ ഏഷ്യനെറ്റ് മീഡിയൻ മീഡിയ വൺ മനോരമ എന്നിങ്ങനെ ഇതൊണ്ട് ഏറ്റവും കൂടുതൽ ഇടുക്കിയെ ഞങ്ങൾ ഇടുക്കി പ്രദേശമായതു കൊണ്ട് ഇടുക്കിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടുക്കീയിലെ ജനങ്ങൾക്ക് ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നത് ഈ മീഡിയ വിഷനാണ് മീഡിയ വിഷൻ ഞങ്ങളുടെ ഇടുക്കിയിലുള്ള എല്ലാ ഈ പ്രദേശത്തുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് വലിയ ഒരു മാർ വാർത്ത മായിട്ട് കൊണ്ടുവരികയും കൂടാതെ ഞങ്ങൾക്ക് ശെക്കീന എന്ന വാർത്താമാധ്യമം ഉണ്ട് ശാലോം എന്ന വാർത്താമാധ്യമങ്ങളുണ്ട് ഈ വാർത്താമാധ്യമങ്ങളിൽ ഒക്കെ ശാലോമും ശെക്കീനയും ഒക്കെ വർത്താമാധ്യമങ്ങൾ നേരായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ഈ പ്രദേശത്തുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മലകളിലും മണ്ഡകളിലും ഒക്കെ താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ എത്തിക്കുവാനായിട്ട് മീഡിയ നെറ്റൊണ്ട് മീഡിയ നെറ്റ് കറക്ടായിട്ട് ഞങ്ങളുടെ ഭാഷയിൽ അത് പറയും മലയാളം വ്യക്തമാക്കി അത് തരുകയും ഇടുക്കി പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും അത് കാണിക്കുകയും പിന്നെ ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് അതുവഴി ഞങ്ങളുടെ ഓരോ സ്ഥലത്തുണ്ടാകുന്ന സംഭവങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധകളെ ഏറെ പ്രത്യേകിച്ച് വന്യജീവികളുടെയെല്ലാ ആക്രമങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ മീഡിയ നെറ്റിലെ ഇവിടെ വാർത്ത തരുകയും മീഡിയ നെറ്റ് എന്ന ചാ വാർത്താമാധ്യം എല്ലാവരിലും എത്തിക്കയും അത് എല്ലാ മനുഷ്യരും കാണുകയും ആ ആ ഒരു ഇതുള്ളത് കൊണ്ട് കൂടാതെ ഇടുക്കി വിഷ്യൻ ഇടുക്കി വിഷ്യൻ എന്ന ചാനൽ ഉള്ളത് കൊണ്ട് ഇടുക്കിയിലെ പ്രതിസന്ധികളെ പ്രയാസങ്ങളൊക്കെ അറിയുവാനും ഇടുക്കിയിലെ കാർഷിക മേഖലയിലുള്ള മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ അറിയുവാനും ആ ബുദ്ധിമുട്ടുകളെ പിന്നെ ഇതിലൂടെ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമൂഹത്തെ അറിയിക്കുവാനും ഒക്കെ ആയിട്ട് ഈ വാർത്ത മാധ്യമം ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ ഞങ്ങളുടെ പ്രാദേശിക ഭാഷയായ മലയാളമായത് കൊണ്ട് സാധാരണക്കാർ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നു കൂടുതലും ഈ പഴയ തലമുറകളൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ മലയാളമാണ് കാരണം പുതു തലമുറ കുറെയൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയും മനസ്സിലായാലും പഴയ തലമുറകൾക്ക് അത് ഒന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ ചാനലുകൾ പ്രത്യേകിച്ച് മീഡിയാ നെറ്റ് ഇടുക്കി വിഷൻ എന്ന പോലുള്ള പ്രാദേശിക ചാനലുകൾ വഴിയായിട്ട് പിന്നെ സ്വന്തം ലാംഗ്വേജിലു അറിയുകയും ആ സ്വന്തം ലാംഗ്വേജ് വഴിയായിട്ട് എല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ വേദനകൾ അറിയുമ്പോൾ അത് ഗെവൺമെൻ്റ് തലത്തിൽ എത്തിക്കുവാനും അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടുക്കി വിഷൻക്കാരും മീഡിയ നെറ്റ്ക്കാരും അവിടെ എത്തിച്ചേരുകയും അവിടെ എത്തിച്ചേർന്നിട്ട് അവർ ആ വാർത്തകളൊക്കെ സാധാ മലയോര മേഖലകളിലല്ലാതെ മലയുടെ മണ്ടകളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ വെള്ളമില്ലാത്ത പ്രയാസം ബുദ്ധിമുട്ടുകൾ വന്യജീവികളുടെ ബുദ്ധിമുട്ടുകൾ പിന്നെ പല തരത്തിലുള്ള ജോലിയില്ലാത്ത ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ചൂട് കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഇതൊക്കെ എത്തിക്കുവാനും പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയായ ഏലം കുരുമുളക് ജാതി എന്നീ ഏതകൾക്ക് ഇന്നത്തെ വളരെ അധികം ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് ആ ചൂടിൽ നിന്നും രക്ഷപെടുവാനായിട്ട് അവർ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ വാർത്ത ചാനലായ മീഡിയ നെറ്റും ഇടുക്കി വിഷനയ ഈ പ്രാദേശിക ചാനലുകൾ അവരോട് അവരെ അറിയിക്കുകയും സമൂഹത്തെ അറിയിക്കുകയും അധികാരികളെ അനുസരിച്ച് അറിയിക്കുകയും പ്രാദേശിക താലുക്ക് താലൂക്ക് പഞ്ചായത്ത് വില്ലേജ് ഓഫീസർമ്മാരുടെ കണ്ണുകളെ തുറപ്പിക്കുവാനും അതുവഴി മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തന്ന് അവർക്കും പിന്നെ കൂടുതലും വെള്ളവും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടുവാനും അങ്ങനെ അത് കിട്ടുന്ന വഴി അത് വളരെ ഉപകാരപ്പെടുത്തുവാനായിട്ട് ഒക്കെ സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത് പിന്നെ സാധിക്കുന്നത് ഈ മീഡിയാനിറ്റ് ഈ ചാനലുകൾ മുഖേനെയാണ് പ്രാദേശിക ചാനലുകൾ മുഖേന ഈ പ്രാദേശിക ഇന്ന് ഇന്ന് ഈ ചാനലുകൾ ഉള്ളതു കൊണ്ടാണ് പറയാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമൂഹത്തിന് കാർഷിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ചാനലു മുഖേന ഇതൊക്കെ കിട്ടുകയും അതുവഴി നമുക്ക് കൂടുതൽ കാര്യങ്ങളും നേടിയെടുക്കുവാനൊക്കെയായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ അധികം സാധിക്കുന്നുണ്ട് സാധിക്കുന്നത് കാരണം പിന്നെ ഒത്തിരി പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളും കടക്കണികളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സ്വന്തം ഭാഷയിൽ മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ടും ഈ പ്രാദേശിക ചാനലുകൾ വഴിയായിട്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയിക്കുവാൻ ഒക്കെയായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കുറെ ഒക്കെ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഓരോ അവനോ അവരോരായിരിക്കുന്ന ഈ ഞങ്ങൾ ഇടുക്കിയിലാണ് ഇടുക്കീയിലെ ജനങ്ങൾക്ക് ഇടുക്കീടെ വിഷമങ്ങളെ ഇടുക്കീടെ പ്രതിസന്ധികളെ ഇടുക്കീടെ പ്രയാസങ്ങളെ ഇടുക്കീടെ ബുദ്ധിമുട്ടുകൾ ഇടുക്കീടെ കാർഷിക മേഖലകളേക്കൊക്കെ അറിയിക്കുവാനായിട്ട് ഇടുക്കി മക്കൾക്ക് മാത്രമേ സാധിക്കത്തൊള്ളൂ അപ്പോൾ അവ മറ്റു ചാനലുകൾ കോമണായിട്ടു ചാനലുകളുണ്ടായാലും സ്വന്തം സ്ഥലത്തെ പ്രാദേശിക സ്ഥലത്തെ ചാനലുകളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് സാധിക്കത്തുള്ളൂ അപ്പം ഈ പ്രാദേശിക ചാനലുകൾ ഉള്ളത് കൊണ്ട് പ്രാദേശിക ആയിട്ടുള്ള അതായത് ഒരു കേരളമാണെങ്കിലും വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ കൾച്ചറുകളും വ്യത്യസ്തമായ കൃഷി രീതികളുമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രാദേശിക ചാനലായ പിന്നെ ഈ മീഡിയ നെറ്റും ഇടുക്കി വിഷനും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് വളരെ അധികം കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇത് സ് കേന്ദ്ര സംസ്ഥാന ഗെവൺമെൻ്റിനെയും അധികാരികളെയും ഒക്കെ ഈ ചാനല് വഴി വഴിയായിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പം അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ അത് കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും അതിനു വേണ്ടി എല്ലാം ചെയ്തു തരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചടുത്തോളം ഈ പ്രാദേശിക പ്രദേശം ഞങ്ങളുടെ പ്രദേശത്തായ ഈ പ്രാദേശിക ഭാഷയിൽ ഈ ചാനലു ഉള്ള കൊണ്ട് വളരെ അധികം ഉപകാരപ്രദമായി തീരുകയും അതുവഴി ഞങ്ങൾക്ക് അതിൻ്റെ വര എല്ലാ ഗുണങ്ങളും ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ലഭിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അത് കൂടുതൽ മറ്റുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ കുറയുകയും സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ വിളവുകൾക്കൊന്നും അധികം വള വിലയില്ലാത്തതിനാൽ ആ വില കിട്ടുവാനായിട്ട് ഈ ചാനലുകൾ വളരെ അധികം ഉപയോഗപ്പെടുത്തുകയും അവർ കർഷകർക്ക് വേണ്ടി വളരെ അധികം ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്